ആ സാർ ആ ഞാൻ കുട്ടികൾക്ക് അഡ്മിഷനെടുക്കാൻ എന്തുചെയ്യണമെന്നു ചോദിക്കാൻ വന്നതാണ്

ഒരാൾക്ക് എൽകെജിക്കും ഒരു കുട്ടി രണ്ടാംക്ലാസ്സിലേക്കുമാണ് അപ്പോൾ ആ രണ്ടുപേര് ആ ഇവിടെ ഇപ്പോൾ അന്വേഷിച്ചപ്പോൾ നല്ല സ്കൂളാണ് പഠിപ്പിക്കുന്നതെല്ലാം കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇങ്ങോട്ടു വന്നു ചോദിക്കാൻ വന്നതാണ് ആ ആ അപ്പോൾ എൽകെജിക്ക് ക്ലാസ്സെപ്പോഴാണ് തുടങ്ങുന്നത് രണ്ടാംക്ലാസ്സ് അതൊക്കെയോ അത് ടൗണിത്തെയൊരു സ്കൂളിലാണ് അപ്പോൾ അവിടെ പഠിപ്പിക്കൽ കുറച്ച് കമ്മിയാണ് അപ്പോൾ അവിടുന്ന് ഇവിടെയാകുമ്പോൾ എൽകെജിയുമുണ്ട് അപ്പോൾ രണ്ടുപേർക്കും ഒപ്പം പോകാൻ പറ്റുന്ന സ്കൂളിവിടെ അടുത്തുമാണ് പിന്നെ ഇവിടുത്തെ സ്കൂൾ വാൻ വീട്ടിൻ്റെ ഫ്രണ്ടിൽക്കൂടെ വരുന്നുണ്ട് യാത്രസൗകര്യമൊക്കെയുണ്ട് അപ്പോൾ പിന്നെ ഇവിടേക്ക് ആക്കാന് പറഞ്ഞിട്ടാണ് വീട് നമ്മുടെ കണ്ണനൂർ അവിടെ വരും ആ അതാ ആ അപ്പോൾ അതുകൊണ്ടാണ് ഇവിടേക്ക് മാറ്റാൻ വന്നത് ആ എത്രയാണ്

ഡോണെഷൻ ഒക്കെ അല്ലെ എല്ലാം നിങ്ങൾ തന്നെ പ്രൊവൈഡ് ചെയ്യും ബസ് ഫീസ് നമ്മളാണല്ലേ ആ ശരി ഓക്കേ അപ്പോൾ രണ്ടുപേർക്കുമപ്പോൾ മൂന്നുമണിവരെ ഉണ്ടാവുകയുള്ളു ക്ലാസ്സ് അതോ എൽകെജിയുള്ളവർക്ക് കുറച്ച് നേരത്തെ വിടുമോ മൂന്നുമണിവരെ ഉണ്ടാകുമല്ലെ പത്തുമണിതൊട്ട് മൂന്നുമണി അല്ല ഒമ്പത് മണിതൊട്ട് മൂന്നുമണിവരെല്ലേ രണ്ടാംക്ലാസ്സിൽ ഉള്ളവർക്ക്

ആ ഇവിടെ വീടിൻ്റെ അടുത്ത് തന്നെ അത് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുമല്ലേ ഉച്ചഭക്ഷണം അവിടെ സ്കൂളിലാണല്ലേ പ്ലൈഗ്രൗണ്ടൊക്കെ എങ്ങനെയെവിടെ സ്കൂളിൽ പ്ലൈഗ്രൗണ്ട് കളിയ്ക്കാൻ കുട്ടികൾക്ക് കളിക്കാനുള്ള എല്ലാം ആ ഡൊനേഷനിൽ ഉൾപ്പെടില്ലേ സെപ്പറേറ്റാണ് അപ്പോൾ നമ്മൾ എടുക്കണം ആ ടി സി കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്

ശരി സർ